ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് അവധി ദിനമായിട്ട് പറയുകയാണെന്ന് പറയുമ്പോൾ കുറേയധികം അവധി ദിനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നമുക്ക് ആദ്യം ഇപ്പോൾ ജനുവരി മാസം നോക്കുകയാണെന്ന് പറയുമ്പോൾ ജനുവരി മാസം ഇരുപത്താറാം തീയതി റിപ്പബ്ലിക് ഡേ അത് ദേശീയമായിട്ട് നമുക്ക് ഇന്ത്യയിൽ മൊത്തം അതിൻ്റെ ലീവ് ഉണ്ട് അതിൽ നമുക്ക് ഇന്ത്യ എല്ലാ സ്കൂളും കോളേജുകളും ഇപ്പോൾ ഓഫീസുകളും മിക്കവർക്കും ലീവ് തന്നെ ആയിരിക്കും ഇൻഡിപെൻഡൻസ് ഡേയ്ക്ക് അതുപോലെ റിപ്പബ്ലിക് ഡേയ്ക്ക് എന്ന് പറയുമ്പോൾ അതൊക്കെ ലീവ് തന്നെയായിരിക്കും പിന്നെ നമുക്ക് രണ്ടാമത്തെ ലീവ് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് ഇൻഡിപെൻഡൻസ് ഡേ അതും ലീവ് തന്നെയാണ് പിന്നെ നമുക്ക് വരണത് ലീവ് ആയിട്ട് വരണത് പിന്നെ ഉത്സവങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്ക് ദീപാവലി ഒരു നമുക്ക് ലീവ് കിട്ടണതാണ് പിന്നെ ഓരോ സംസ്ഥാനങ്ങൾ അതിൻ്റെതായിട്ട് കുറേ ലീവുകൾ ഉണ്ടാവും പിന്നെ വിജയദശമി പറയുമ്പോൾ മാക്സിമം ഇന്ത്യയിലെ എല്ലാവിടേയും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ ആഘോഷിക്കണ ഒരു ഉത്സവമാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിലാണ് വിജയദശമി എന്ന് പറയും അതുപോലെ നോർത്തിലേക്ക് പോകുമ്പോൾ വേറെ വേറെ പൂജ ഹോളിഡേയ്സ് എന്ന് പറയും അങ്ങനെ ഓരോ കാര്യങ്ങളാണ് അപ്പോൾ അതിനനുസരിച്ച് അതിനിപ്പോൾ ഒരു മൂന്നാലു ദിവസത്തെ ലീവും കാര്യങ്ങളൊക്കെ മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാകും നോർത്ത് ഭാഗത്തിന് ഈ ദീപാവലിക്ക് കുറച്ചും കൂടി ലീവ് കൂടുതലായിരിക്കും നമ്മുടെ സൗത്തിലേക്ക് വരാണ് പറയുമ്പോ പൊങ്കല് തമിഴ്നാട്ടില് ആണെങ്കി പൊങ്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോ കേരളത്തിലാണെങ്കിൽ ഓണം ലീവാണ് പിന്നെ ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് ഇതിൻ്റെ ആഘോഷ പരിപാടികളും കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെന്ന് പറയുമ്പോൾ ഓണത്തിന് പത്തു ദിവസം ലീവ് ഉണ്ട് അതിൻ്റെ ആഘോഷം എന്നു പറയുമ്പോൾ എല്ലാവർക്കുമറിയാവുന്ന പോലെ പൂക്കളം ഇട്ട് അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങൾ ആണ് ഇപ്പോൾ മറ്റേ വിജയദശമി എന്ന് പറയണ സമയത്ത് നമ്മളെ ബുക്ക് അല്ലെങ്കിൽ എല്ലാ ആയുധങ്ങൾ ഇപ്പോൾ നമ്മുടെ പണി ആയുധങ്ങൾ ആയാലും പുസ്തകം ഇപ്പോൾ പഠിക്കുന്നവർ ആണെങ്കിൽ പുസ്തകങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൂജയ്ക്ക് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് സരസ്വതി ദേവിയുടെ മുമ്പിൽ പൂജയ്ക്ക് വെച്ച് അങ്ങനെയാണ് അത് ആഘോഷിക്കണത് പിന്നെ നമുക്ക് നോക്കുകയാ ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപാവലി ഈ ലൈറ്റിൻ്റെ ഒക്കെ ഉള്ള പരിപാടിയാണ് ഇപ്പോൾ എല്ലാവരും നമ്മളെ വിളക്കുകൾ കത്തിച്ചു വീട്ടിൽ എല്ലാവിടേയും ഇപ്പോൾ ഫ്ലാറ്റിൽ ആയാലും സാധാ വീടുകളിൽ ആയാലും ഓഫീസുകളിൽ ആയാലും ഇപ്പോൾ കൂടെ എല്ലാവിടേയും ഇപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് ലൈറ്റുകളൊക്കെ നമ്മൾ എല്ലാവരും കുറച്ച് ചിരാതുകൾ അപ്പോൾ അതുപോലത്തെ സംഭവങ്ങൾ വെച്ച് ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ച് പിന്നെ ചില ചില സ്ഥലത്ത് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ദീപാവലിക്ക് ആയാലും അങ്ങനെയാണ് അതിൻ്റെ ആഘോഷം ഇപ്പോൾ പൊങ്കൽ ആണ് തമിഴ്നാട്ടിലെ ഫേമസ് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക പൊങ്കലിന് ഇതേപോലെ അവരെ കോലം ഇട്ടും ഈ പൂക്കളം പോലത്തെ പരിപാടിയൊക്കെ ഇട്ടിട്ടാണ് അതിനെ അവർ ആഘോഷിക്കുന്നത് അങ്ങനത്തെ ഇപ്പോൾ ഓരോ സംസ്ഥാനം നോക്കുകയാണെങ്കിൽ ഓരോ ടൈപ്പ് ആഘോഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ഇപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ വിജയദശമിയും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ എന്നാലും പക്ഷേ അവരെ അവരുടേതായ എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടേതായ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഇപ്പോൾ സർക്കാരിൻ്റെ ലീവ് ഉണ്ടാകും ചില സമയത്ത് കേന്ദ്രസർക്കാരിൻ്റെ ലീവ് ഉണ്ടാവും കേന്ദ്ര സർക്കാരിൻ്റെ ലീവ് നമുക്കങ്ങനെ പൊതുവായിട്ട് കൊടുക്കാൻ പറ്റില്ല പക്ഷേ ചില ചിലതിലൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തിലൊരു അഞ്ചോ പത്തോ ലീവുകൾ ഒക്കെ ഉണ്ട് നമുക്ക് കേന്ദ്രത്തിന്റെ പിന്നെ സംസ്ഥാന തലത്തിലുള്ള ലിവുകൾക്കായിരിക്കും ഉത്സവങ്ങൾക്കും മെയിനായിട്ട് നമുക്ക് കിട്ടണത്